ആ ഹലോ മാം ഓക്കെ നമുക്കിപ്പോൾ ബനാറസ് സാരി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വിഷു മോഡൽ കുറേ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നുള്ളത് ഇപ്പോൾ മാം ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കണ്ടിട്ട് സെലക്ട് ചെയ്യാം പിന്നെ ഉള്ളത് നമുക്ക് ക്യാറ്റലോഗ് കാണിച്ചിട്ട് മാഡത്തിന് ഏതാണോ ഡിസൈൻ ആ ആവശ്യമുള്ളത് അത് മാം പറയുന്ന ഒരു കളർ ചേഞ്ച് നമ്മൾ ചെയ്തുതരുകയാണ് ചെയ്യുന്നത് അപ്പം മാമിന് ഫംഗ്ഷന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഓക്കെ ബനാറസിൻറേത് ആ ഉണ്ട് ബനാറസ് പൊതുവിൽ നമുക്ക് ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല കളർ ചേഞ്ച് കളർ കളർ കഴിവാ അല്ലെങ്കിൽ വേറെ ഒരു ഡാമേജ് പോലത്തെ അങ്ങനെ ഇതുവരെ ബനാറസ് സാരിയിൽ നമുക്ക് നമ്മുടെ ഷോപ്പിൽ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല മാം അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ജോർജെറ്റ് മോഡൽ ബനാറസ് സാരിയാണ് വരുന്നത് അതപ്പം ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് തടിയുള്ള ആൾ ഉടുത്താലാണെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന മോഡൽ ആണ് പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലൗസ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് തയ്പ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര ഒരു ഫേയ്സിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം പിന്നെ ഉള്ളത് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളർ മാമിന് ഷോപ്പിൽ വന്നിട്ട് നോക്കാം അല്ലെങ്കിലുള്ളത് നമുക്കിപ്പോൾ കളർ പാറ്റേൺ വരുന്ന നമ്മൾ ഡിഫറൻറ് ആക്കിയിട്ട് അധികം കണ്ട് വരാത്ത മോഡൽ ഉള്ള ഇപ്പം ബനാറസിലാണ് കൂടുതലായി ഇത് ചെയ്യുന്നത് അപ്പം മാം ഒന്ന് നമ്മുടെ ഷോപ്പിൽ വരുവാണെങ്കിൽ ഇപ്പോൾ ഉള്ള കളക്ഷൻ കാണാം അല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുക്കാം കൂടുതലായിട്ട് ഹാൻഡ് വർക്ക് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് റേറ്റ് റേറ്റ് ഇപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് ഒന്നും ഇല്ലാത്തൊരു മോഡലിൽ നോർമൽ വരുന്നതൊരു ഫോർ തൗസൻഡ് തൊട്ടിട്ടാണ് ഹാൻഡ് വർക്ക് വരുമ്പോൾ അത് സിക്സ് തൗസൻഡ് ആ റേഞ്ചിലോട്ട് വരും പിന്നെ മാഡം പറയുന്ന പാറ്റേണിൽ ചെയ്തെടുക്കുമ്പോൾ ചെയ്യുന്ന വർക്കിൻറെ ഒരു രീതിയിലാണ് നമ്മൾ എമൗണ്ട് വരുന്നത് അല്ലെ ബേസിക് ഒരു ഫോർ തൗസൻഡ് തൊട്ടിട്ട് തുടങ്ങുന്നുണ്ട്

ആ ചെയ്ത് തരും ഒരു ടു വീക്സ് മുന്നേ മാം ഒന്ന് ഷോപ്പിൽ വരുന്നതാണെങ്കിൽ നമുക്കൊന്ന് നേരിട്ട് കണ്ടിട്ടൊക്കെ പറയാമായിരുന്നു ഇപ്പോൾ മാമിനൊന്ന് ഷോപ്പിലേക്ക് വരാൻ പ ബുദ്ധിമു ആ ഓക്കെ

ഓക്കെ ക്യാറ്റലോഗ് ഒക്കെ ഞാൻ മാഡത്തിന് ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് തരാം ആ ബാക്കിയുള്ളത് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ വന്നിരിക്കുന്നത് മാമിനൊന്ന് ഷോപ്പിൽ വന്നിട്ടൊന്ന് കാണുകയും ചെയ്യാം ആ എക്സ്ട്രാ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ചെയ്ത് തരും ഒരു ത്രീ ഒരു ടു വീക്ക് ഒരു സമയം മതി നമുക്ക് ചെയ്തിട്ട് മാമിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ താങ്ക് യൂ